ഓക്കെ ഞാൻ ഒരു തിരുവനന്തപുരത്തുകാരനാണ് അപ്പോൾ ഇനി ഓണത്തിന് വിളിച്ചാലും തൃശ്ശൂർപ്പൂരം മൊബൈലിലും ടി വിയിലൂടെയും കണ്ടിട്ടുണ്ട് ഓണത്തിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ ഒന്നാം ഓണം തൊട്ടു നമ്മൾ ആഘോഷിക്കും ഒന്നാം ഓണത്തിന് നമ്മൾ അവിടെ നിന്ന് പിന്നെ പിരിവിനു പോകുന്നു നമ്മൾ അവിടെ നിന്നു രാവിലെ എണീക്കുന്നു ഓണപ്പരിപാടികൾ നമ്മൾ സ്കൂള് വിട്ടു വന്ന് ഓണപ്പരിപാടി സെറ്റ് ചെയ്യും എന്തൊക്കെ ഇന്നത്തെ പരിപാടി സെറ്റ് ചെയ്യും അപ്പോൾ എത്ര കുട്ടികളുണ്ട് എത്ര ട്രോഫി വേണം അപ്പോൾ എത്ര പിരിവെടുക്കണം ഓണ മാവേലിയായിട്ട് ഒരുക്കാൻ ഒരാളെ റെഡിയാക്കണം ഒരു ഇതാണ് അപ്പോൾ നമ്മൾ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഓണ പരിപാടികൾ സെറ്റ് ചെയ്യും അതിൽ അത്തപ്പൂക്കള മത്സരം അങ്ങനെ ഒരുപാട് ബലൂൺ ഫൈറ്റ് അങ്ങനെ ഒരുപാട് കളികളുമായിട്ട് നമ്മൾ മുന്നോട്ടു പോകും പിന്നെ സദ്യ ഓണത്തിൻ്റെ കേസിൽ ആദ്യം കണ്ടു വരുന്നത് സദ്യയാണ് കണി കാണും നേരം ഇവിടെ സദ്യ അപ്പോൾ സദ്യ പിന്നെ അത്തപൂക്കൾ അത്തപ്പൂക്കള മത്സരമൊക്കെ പിന്നെ ഓണക്കളികൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റം ഉണ്ട് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുദിവസം ഓരോ കളികളെല്ലാമുണ്ട് ഓണപന്ത് ഓണക്കളികൾ ഓണത്തല്ല് തനങ്ങനെയിടയിൽ കമ്മൂകേറ്റം ഇതിനൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ ഇതിനൊക്കെയായിട്ട് പിരിവുകൾ പോണം ഓരോ വീട്ടിലെയും പിന്നെ മാവേലിയെ കെട്ടിക്കൊണ്ടു പോകുന്നു ഓണത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഈ കേരളീകളുടെ ആഘോഷമാണ് ഓണത്തിന് അന്ന് മുണ്ടൊക്കെ ഉടുത്ത് സദ്യകഴിച്ച് അങ്ങനെ നടക്കുന്നതിൻ്റെ ഫീല് വേറെയാണ് അത് ഓണത്തപ്പനെ വരവേൽക്കണം അത്തപൂക്കളം ഓരോ വീട്ടിലും ഓണമെന്ന് പറയുമ്പം തന്നെ ആ ഒരു ഇതും ആ സ്കൂൾ അടച്ചിരിക്കുന്ന സമയവും അതിൻ്റെ വെക്കേഷൻ എന്നു പറഞ്ഞാൽ സ്കൂൾ അടച്ചിരിക്കുന്ന ഓണസമയത്ത് എന്തായാലും എല്ലാവരും ഓണപ്പരിപാടികളിൽ ഓണപ്പരിപാടിയിലായിരിക്കും നമ്മൾ എന്തായാലും ഒരു പിരിവിന് ഇറങ്ങും അതിൻ്റെ കാര്യങ്ങൾ ഇറങ്ങും അതിൻ്റെ ഇതാകും ഇവിടെ എങ്ങനെ പരിപാടികൾ നടത്താം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ ഓണത്തിന് പ്ലാൻ ചെയ്തും അങ്ങനെ ഓണപ്പരിപാടികൾ അതിഗംഭീരമായി നടക്കും അതുകഴിഞ്ഞാൽ സദ്യ കഴിക്കും എല്ലാവരും കൂടെ ഒത്തൊരുമയായിട്ട് സദ്യ ഒത്തൊരുമയാണ് ഓണം എന്നുപറയുന്നത് അത് കേരളീയരുടെയും എല്ലാവരുടെയും ഒത്തൊരുമയാണ് ഈ ഓണം എന്നുപറയുന്നത് കാര്യം